ഇത് ദേവമാതാ ഓട്ടോയുടെ ഡ്രൈവർ അല്ലേ ആ ഞാൻ പിന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണേ വെഹിക്കിൾ വെഹിക്കിൾ ആ നിങ്ങളുടെ ഓട്ടോ ഇപ്പോൾ ഇതിലെ പാസ് ചെയ്തപ്പഴ് ക്യാമറ വഴി കണ്ട് നിങ്ങൾ യൂണിഫോം ധരിച്ചിട്ടില്ല സീറ്റ് ബെൽറ്റില്ല അങ്ങനെ പല കംപ്ലയിൻറ്റും നിങ്ങളുടെ ഓട്ടോയെ കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ യൂണിഫോം ഒന്നും ധരിക്കാത്തത് കയ്യിൽ പിടിക്കാൻ അല്ലല്ലോ യൂണിഫോം അത് വണ്ടിയിൽ വെക്കാനല്ല വണ്ടിയിൽ വെക്കാനല്ല നമ്മൾ അത് നിങ്ങൾ ഓട്ടോ ഓടിക്കുമ്പം അത് ധരിക്കാന്നുള്ളത് നമ്മളെ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അതുപോലെയൊക്കെ തന്നെ നിങ്ങളുടെ ലൈസൻസിൻ്റെ കാലാവധി തീർന്ന് കിടക്കുകയാണല്ലോ ആ ഒന്നുകൂടെ നോക്കിക്കേ ലൈസൻസ് എടുത്ത് നോക്ക് ലൈസൻസിൻ്റെ കാലാവധിയും തീർന്ന് കിടക്കുകയാണ് ആ അപ്പോൾ ഇതിന് എല്ലാംകൂടെ കൂട്ടി ഒരു ഫൈൻ അങ്ങ് വരും അത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഫൈൻ ഞാൻ ഇടുന്ന അല്ല അത് ഗവൺമെൻറ്റിൻ്റെ റൂള് ആണ് അത് ഫൈൻ ഇല്ല ഇല്ല അത് ഒന്നും നോ അത് ഒന്നും ചെയ്യാൻ അത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല അത് ഒന്നും എൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല എനിക്കിപ്പം അത് എൻ്റെ ഈ ക്യാമറായിൽ വന്നു അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതൊന്നും അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അത് ഒന്നും നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യത്തില്ല ഗവൺമെൻറ്റിനൊരു റൂള് വെച്ചിട്ടുണ്ട് നമ്മൾ റോഡിൽകൂടെ ഇല്ല ഇല്ല നേരിട്ട് കാണുവൊന്നും അല്ല നമ്മൾ ഒരു റൂള് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളെ ഒക്കെ നിയമിച്ചിരിക്കുന്നത് റൂളുകള് തെറ്റിക്കാതിരിക്കാനായിട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇല്ല അത് ഫൈൻ നിങ്ങൾക്ക് വീട്ടിലോട്ട് വരത്തേ ഉള്ളൂ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അത് അക്ഷയയിൽ കൊണ്ട് അടക്കുക അല്ലെങ്കിൽ കോടതി കൊണ്ട് അടക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ല എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ക്യാമറ വഴി പിടിച്ചതാണ് ഞാൻ നേരിട്ട് പിടിച്ചതായിരുന്നെകിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഈ ക്യാമറ വഴി കണ്ടതായത് കൊണ്ടും എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അതുകൊണ്ട് അതിൻ്റെ ഫൈനെല്ലാന്ന് നിങ്ങൾക്ക് വരും അത് നിങ്ങൾ ചെയ്യുക കേട്ടോ ആ എന്നാൽ ശരി